നെയ്ത്തിനും തുന്നലിനുമായിട്ട് പ്രത്യേകിച്ച് പുസ്തകങ്ങളൊ യൂട്യൂബ് ചാനല്കളോ സോഷ്യൽ മീഡിയേല് അക്കൗണ്ടോ അങ്ങനെയുള്ളവയൊന്നും എനിക്കില്ല പിന്നെ ഞാൻ എൻ്റെ സ്വന്തം ബുദ്ധി വെച്ച് ഞാൻ പഴയ വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ട് അത്യാവശ്യം വേണ്ട രീതിയിൽ അതൊക്കെ ചെയ്ത് ചെയ്യാറുണ്ടായിരുന്നു നേരത്തെ മുതൽ പിന്നെ അത് ഇപ്പം സമൂഹത്തിൽ പരസ്യപ്പെടുത്താൻ പാകത്തിനുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല പക്ഷേയെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ആ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ എൻ്റെ തലയുപയോഗിച്ച് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പുറത്തെങ്ങും പോയി അധികം പ്രാക്ടീസ് ഒന്നും നേടിയിട്ടില്ല എങ്കിൽ പോലും പണ്ട് മുതലേ ഞാൻ ഇതെങ്ങനെയാണ് ഇത് വെട്ടുന്നത് അല്ലെങ്കിൽ എടുക്കുന്നത് എന്നൊക്ക വിചാരിച്ച് ഞാനിതൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്